നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ നിത്യവും വൃത്തിയായി സൂക്ഷിക്കുവാനായി ഞങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയെന്നാല് ആ വീടും പരിസരവും മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശവും ദിവസവും രാവിലെയും വൈകിട്ടും തൂത്തു വാരുന്നു അടിച്ചു വാരി വൃത്തിയാക്കുന്നു മാത്രമല്ല കരിയിലകൾ കത്തിച്ച് കളയുകയും പ്ലാസ്റ്റിക് ഒന്നും തന്നെ അവിടെ കുന്നു കൂടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു കൂടാതെ വെള്ളം കെട്ടി കെടക്കാൻ സാധ്യതയുള്ള മണ് ചിരട്ട കുപ്പികൾ അങ്ങനെ പോലുള്ള സാധനങ്ങൾ ഒന്നും തന്നെ അവിടെ നിക്ഷേപിക്കാതിരിക്കുന്നു അനാവശ്യമായി ഉണ്ടാകുന്ന വേസ്റ്റുകൾ അതിന്റേതായ രീതിയിൽ നിർമ്മാര്ജ്ജനം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ആരും തന്നെ വേസ്റ്റുകള് ഒന്നും തന്നെ നമ്മുടെ പ്രദേശത്ത് കൊണ്ട് ഇടാതെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് മറ്റാരും അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകള് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇടാൻ അനുവദിക്കുകയും ഇല്ല